ഞാൻ ഇന്ന് സ്വിഗ്ഗീ വഴി ഫുഡ് ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഞാൻ മുഖത്തലയിൽ നിന്നാണ് ഓഡ്റർ ചെയ്തത് പുന്തലത്താഴത്തുള്ള റെസ്റ്റോറന്റാണ് അപ്പം അവിടെനിന്ന് എനിക്ക് എൻ്റെ അഡ്രസ്സിൽ ഞാൻ നിൽക്കുന്ന അഡ്രസ്സിൽ ഫുഡ് ഡെലിവറാവാൻ എത്ര സമയമെടുക്കും കാരണം അവിടെനിന്ന് ഇവിടം വരെ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റാണ് എടുക്കുന്നത് കൂടിപ്പോയാൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് അപ്പോൾ ഇത് നിങ്ങളെങ്ങനെയാണ് ഈ ഡെലിവറി സമയം എങ്ങനെയാണ് കൃത്യം ഈ കണക്കാക്കുന്നത് ഞാൻ ഉദേശിച്ചാൽ ദൂരം വച്ചിട്ടാണോ ഡെലിവറി ടൈം കണക്കാക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് ചെയ്തത് രണ്ട് മണിക്കാണെങ്കിൽ എനിക്ക് ഫുഡ് എത്തേണ്ടത് രണ്ടര അല്ലെങ്കിൽ രണ്ട് രണ്ടേമുക്കാൽ അതിനകം ആ ഫുഡ് ഡെലിവറാവേണ്ടത് കറക്റ്റ് സമയം നിങ്ങളെങ്ങനെയാണ് ഇത് കണക്കുക്കൂട്ടുന്നത് ഈ ഡെലിവറി ടൈമ് റെസ്റ്റോറന്റും ഈ ഞാൻ നിൽക്കുന്ന അഡ്രസ്സും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് നോക്കിയിട്ടാണോ ഏഹ് കറക്റ്റ് എത്ര മണിയാകുമ്പം എനിക്ക് ഈ ഫുഡ് ഡെലിവറാകുമോയെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ